ഇപ്പോൾ വയനാട് ജില്ലയിലെ സമ്പദ്വ്യവസ്ഥന്നു പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പല രീതിയിലുള്ള ഇതിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കയാണ് ബിസിനസുകൾ അങ്ങനെത്തേലൊക്കെ പോകുന്നുണ്ട് ചിലത് എന്താ പറയാ നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട് ചിലത് നല്ല ലാഭത്തിലേക്കും പോകുന്നുണ്ട് അപ്പം ലാഭം കിട്ടുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നഷ്ടമാകുന്നവർക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വയനാട് ജില്ലയിൽ കൂടുതലായിട്ടും ഇപ്പോൾ ബിസിനസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഫാം പന്നി ഫാം പിന്നെ ഓരോ ഷോപ്പുകൾ ഇട ഇടുക അങ്ങനത്തേന്നൊക്കെയാണ് കൂടുതലായിട്ടും എല്ലാവരും നിൽക്കുന്നത് അപ്പം ചിലവർക്ക് നല്ല രീതിയിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർക്ക് കച്ചവടം കാര്യങ്ങളും ഒക്കെ കുറവാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന വെല്ലുവിളികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് അതായത് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി എസ് ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഭയങ്കര പ്രാ പ്രശ്നമായിട്ടാണ് വരുന്നത് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ഓട്ടോ മൊബൈൽ കാര്യങ്ങളിലൊക്കെ വണ്ടിയും അങ്ങനത്തെ ഉള്ളതിനൊക്കെ നമുക്ക് വർഷോപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടുപോകണമെങ്കിൽ നല്ല രീതിയിലുള്ള പണിക്കാർ കാര്യങ്ങളൊക്കെ വേണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ